എന്താണ് വെച്ചാൽ ഇന്ത്യയിൽ പല പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ നടന്ന് പോരുന്ന ഒരു രാജ്യമാണ് പല മാത മതങ്ങളും മതഭേദമന്യേ എല്ലാവരും ആചരിച്ച് കൊണ്ട് ഒരുമിച്ച് ആചരിക്കുന്ന പല ആചരങ്ങളും ഉത്സവങ്ങളുമുണ്ട് പ്രത്യേകിച്ച് പൂരത്തിന് ബക്രീദിനുള്ള പൂരത്തിനുള്ളത് ബക്രീദിനുള്ളത് പിന്നെ ഓണം വിഷു തുടങ്ങിയ ഒക്കെ മതത്തിനുണ്ടെങ്കിലും മതത്തിന് പുറമേ പലതുമായി ഒരുമിച്ച് കൂടി പ്രത്യേകിച്ച് പൂരമെടുക്കുമ്പോൾ തൃശ്ശൂർ പൂരമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് തൃശ്ശൂർ പൂരത്ത് ഹിന്ദുക്കൾ ഉണ്ടെങ്കിലും മുസ്ലിങ്ങളുണ്ടെങ്കിലു ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിൽ ഒരുപോലെ ആനന്ദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു അവ ആഘോഷിക്കപ്പെടുന്നത് ആനയുടെ ആനയെ വർണ്ണിച്ച് ആനയെ മാറ്റിയൊരുക്കി ജനങ്ങളും മാറ്റിയൊരുക്കി അവരുടെ വേഷത്തിൽ ട്രഡീഷണൽ വേഷത്തിൽ ഒരു സാംസ്കാരിക വേഷത്തിൽ ഒരു മനോഹര രീതിയിൽ അവർ മാറ്റി ഒരുങ്ങിക്കിട്ടി ഒരുങ്ങി ഇരിക്കുകയും ഒരുങ്ങുകയും ചെയ്തിട്ട ഓരോ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മുറകളിൽ ആനകളുടെ യാത്രയും റാലി പോലെയുള്ള നടത്തവും അതിമനോഹരമായ സുന്ദരമായ നിമിഷങ്ങളിലൂടെ കടന്ന് പോകുന്ന ഒരു രീതിയിലാണ് പൂരം പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം തൃശൂർ പൂരം മാത്രമല്ല പല പൂരങ്ങളുണ്ട് കളിയാട്ടുമുക്ക് പൂരമുണ്ട് കളിയാട്ട് കൊട്ടും പാട്ടും അടിയും കളിയും കളറും എല്ലാം വാരിവിതറി ആനന്ദിതമായി ആനേന്ദര തുന്തിരമായി ഈ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റേത് പറയുകയാണെങ്കിലോ ഓണത്തിനെക്കുറിച്ച് എല്ലാ ഹിന്ദുക്കളുടെ വീടിന് മുന്നിലും ഓണത്തിന് വേണ്ടി പൂക്കളം ഒരുക്കി വിശാലമാക്കി മനോഹരമാക്കി ഇതിന് അപ്പുറത്തുള്ള മറ്റുമതസ്തർക്ക് ഭക്ഷണവും വിളമ്പും ഭക്ഷണം ഫ്രൂട്ട്സും നൽകിക്കൊണ്ട് അവരെ പങ്കിടും തിരിച്ച് ബക്രീദിനാവുമ്പോൾ ബക്രീദിൻ്റെ സമയത്തും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങൾക്ക് വേണ്ടി അവർ പാകം ചെയ്തു കൊടുത്ത ഭക്ഷണം തിരിച്ച് കൊടുക്കുകയും അതിൽ തിരിച്ച് കൊടുക്കുക എന്നുള്ള കൊടുക്കുകയും പിന്നെ ഫ്രൂട്ട്സും സാധനങ്ങളും കൊടുക്കുകയും ഒരു മനോഹരമായ ഒരാഘോഷത്തിലൂടെ പടക്കം പൊട്ടിക്കലൊക്കെ എല്ലാത്തിലുമുണ്ട് പടക്കം എന്ന് പറയുന്നത് ഒരു ആനന്ദിതമായി കുട്ടികൾ കാണുന്നു വലിയവർ ഭക്ഷണമായും സൗഹൃദം പുലർത്തിയും കൈ കെട്ടിയു കൈ കൊടുത്തും പുതിയ വേഷമണിഞ്ഞും അവർ അനന്തിര തുന്തിരമായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മിക്ക ഉത്സവങ്ങളും എല്ലാവരും ആചരിച്ച് പോരുന്നു അതിമനോഹരമായ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങൾ പറത്തും എന്നുള്ള മനോഹരമായ മനോഹര നിസ്പൃതമായ നിമിഷങ്ങൾക്ക് വേണ്ടി കാതോർക്കുന്ന ഒരു മനോഹരമായ ആഘോഷങ്ങളാണ് ഈ ഇന്ത്യക്കാർ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും സിക്കിമും മതമില്ലാത്തവരും മതമുള്ളവരും പലരും കൂടി ഒരുമിച്ച് ആനന്ദിച്ച് പ്രത്യേകിച്ച് പല ഈ ഗവർമെൻറുകളും അവർക്ക് അവധി ദിവസങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ആ ആനന്ദങ്ങൾ അവർ ആസ്വദിക്കട്ടെ അവധിദിനങ്ങൾ അവരാസ്വദിക്കട്ടെ എന്ന നിലക്ക് മറ്റവധിദിനങ്ങൾ നൽകാറുണ്ട് അന്നും കുട്ടികളെ പുറത്തും കൂടി ഒരുമിച്ച് കളിച്ച് വളർന്ന് വലുതായി പന്തലിച്ച് ഒടുവായകളായി തീർന്ന് കൊണ്ടിരിക്കുന്നു അതിമനോഹരമായ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനൊടവിൽ അവരെ ഒരു വലുതായി എത്തും അവർ പോവും നല്ല രീതിയിൽ തുടരും അങ്ങനെയുള്ള ഓരോ നിമിഷ മുഹൂർത്ത മനസ്സിൽ മന്ദരമായ ഓരോ വർണ്ണിക്കാനവാത്ത അത്രയും മനോഹാരിതമായ പല പല ആഘോഷങ്ങളിലും അവർ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അതിമനോഹരമാണ് ആ ഓർക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ചിന്തയിലാണ്ട് പോകുന്ന പല സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാക്കുകൾ അവർക്ക് ഓർകുകയും ഓക്കെ താങ്ക്സ്